ഹലോ പെറ്റ് കെയർ ഷോപ്പല്ലേ എത്ര മണി തൊട്ടാണ് നിങ്ങളുടെ ഷോപ്പ് ഓപ്പണായിരിക്കുന്നത് വൈകുന്നേരം എത്ര മണി വരെ ഉണ്ടാവും ഓക്കെ ഇതെവിടെയാണ് സ്ഥലമെവിടെയാണു വരുന്നത് ഓക്കെ അവിടെ മൃഗങ്ങൾക്കുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഓക്കെ അതിനുള്ള ഈ ക്ലീനിങ് എക്യുപ്മെൻസൊക്കെ നിങ്ങളുടെ അടുത്ത് അവൈലബിളാണോ ജെർമൻ ഷെപ്പേഡ് ഡോഗാണ് ഒരു വയസ്സ് പ്രായം ആ അപ്പോള് അതിനുള്ള വാക്ക്സിനേഷനും ഒന്ന് ഹെയർ കട്ടിങ്ങൊക്കെ ചെയ്യണമായിരുന്നു

അല്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ബുധനാഴ്ച വരും ഓക്കെ ഓക്കെ ഓക്കെ എത്ര മണിക്കൂറെടുക്കും മാക്സിമം ഇത് ഫിനിഷാകാൻ അവിടെ വന്നുകഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോള് അവിടെ നിങ്ങള് സെയിലുണ്ടോ ഈ പെറ്റ്സിനെയൊക്കെ സെയിലെയ്യുന്നുണ്ടോ നിങ്ങള് പെറ്റ്സിനെയൊക്കെ ഡോഗ് ക്യാറ്റ് തുടങ്ങിയ

ഓക്കെ ഈ വാക്ക്സിനേഷനൊക്കെ എത്രയാണ് ചാർജെയ്യുന്നത് സാധാരണ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക്യു ഓക്കെ